ദൈവവുമായിട്ട് മനുഷ്യരുടൊരു ബന്ധം സ്ഥാപിക്കാനും നിലനിർത്താനും ഉള്ള ഒരു കാര്യമായാണ് മതം വളർന്നുവന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടത് മതം ഏത് മതവും ആവട്ടെ ഒരൂ വിശ്വാസത്തിൻ്റെ പിന്നിലുള്ള നന്മ അല്ലെങ്കിൽ നന്മകാര്യങ്ങൾ നല്ലകാര്യങ്ങൾ ചെയ്യുവാനും സഹമനുഷ്യരുമായിട്ട് നല്ലരീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാനുമുള്ള ഒരു ഉപദേശങ്ങളും മറ്റുമാണ് പല മതങ്ങളും നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കോമണായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഓരോ ദിവസം നമ്മൾ കാലം മാറിവരുമ്പോൾ ഓരോ ദിവസം കണ്ട് വരുമ്പോൾ മതം സത്യമാണ് ഒരു കച്ചവടമായി മാറിവരുന്നു ഈ ചോദ്യത്തിനോടുള്ള ഈ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു ഓരോ ദിവസവും മതവും അതിൽനിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ആൾക്കാരിൽ ഉള്ള വികാരങ്ങളും മുതലെടുത്ത് ആൾക്കാർ എന്തുവാ അവരുടെ ഒരു നേട്ടങ്ങൾക്ക് വേണ്ടിയും പലരീതിയിൽ ഉപയോഗിച്ചുപോകുന്നൊരു സാഹചര്യം ഓരോദിവസവും കണ്ടുവരുന്നു രാഷ്ട്രീയത്തിലിത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് മാറ്റിനിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ഇപ്പോഴത്തെ പല നേതാക്കളാവട്ടെ നമുക്ക് പലപ്പോഴും അറിയാം മതത്തിൻ്റെ ആ ഒരു സിംപത്തീസും കാര്യങ്ങളും ഉപയോഗിച്ച് ആൾക്കാരെ കയ്യിലാക്കാനും ഉപയോഗിക്കുന്നവരുണ്ട് ആൾക്കാരുടെ വിശ്വാസമെന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ് അവരുടെ പ്രയാസവും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും അവർ ജീവിതത്തിൻ്റെ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാർ ചേർത്തുപിടിക്കുന്ന എല്ലാത്തിനോടും ചേർന്നു നിൽക്കുന്നൊരു കാര്യമാണ് മതമെന്ന് ഒരു സംഭവം അപ്പോൾ അതിനെവിട്ട് അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ച് ആൾക്കാരെ എങ്ങനെ കയ്യിലാക്കുമെന്ന് വെച്ച് വളരെ വളരെ ശക്തമായ ഇമോഷൻസാണ് അവർ കൺട്രോളിൽ വരുത്തുന്നത് ഒരു ദിവസം നമുക്ക് നോക്കിവരുമ്പോൾ അത് കൂടുതൽ കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിച്ച് മുതലാക്കുന്നതായിട്ട് നമുക്കത് കണ്ട് വരാൻ പറ്റുന്നത് ആൾക്കാരിലുള്ളിലെ വികാരങ്ങളും കാര്യങ്ങളും നല്ലപോലെ വളച്ചൊടിക്കാൻ അവരെ അവരെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഉപയോഗിക്കാനും ഓരോദിവസം മതത്തെ ഉപയോഗിച്ചുവരുന്ന സാഹചര്യം നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുവരുന്നു അത് രാഷ്ട്രീയത്തിലാവട്ടെ കച്ചവടമേഖലകളിലാവട്ടെ അത് ദിവസവും കണ്ടുവരുന്നൊരു സംഭവമാണ് എൻ്റെ കുടുംബം പേർസണലി വളരെ റിലീജിയസായിട്ടുള്ള ഒരു കുടുംബമാണ് നമ്മളോരോ ദിവസം ദേവാലയത്തിനോടും പള്ളികാര്യങ്ങളോടും ചേർന്നു നിൽക്കുക വളരെ താല്പര്യപ്പെടുന്നൊരു കുടുംബമാണ് അതുകൊണ്ടുതന്നെ മതമേഖലകളിൽ അത് തെറ്റായ രീതിയിൽ വിശ്വാസത്തേയും മറ്റു കാര്യങ്ങളേയും ഉപയോഗിക്കുന്ന ഓരോദിവസം കണ്ടുവരുന്ന ഞങ്ങൾ വീണ്ടും വീണ്ടും കണ്ടു ദുഃഖിക്കുന്ന ഒരു കാര്യമാണത് തീർച്ചയായും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്നാണ് ഞങ്ങൾ എനിക്ക് തോന്നുന്നത് പക്ഷേ കാരണം ലളിതമായി ആൾക്കാരതിൽ ലളിതമായി ചിന്തകളുള്ള ആൾക്കാർ അവരുടെ ചിന്താരീതികളേയും മുതലാക്കാനും അവരുടെ വികാരങ്ങളെ കൈയ്യിലാക്കാനും ഉപയോഗിക്കുന്ന മതത്തെ ഉപയോഗിക്കാനിന്ന് വളരെ വളരെ ക്രൂരമായൊരു തെറ്റായൊരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടുവരുന്നത് വളരെ വളരെ നീചമായൊരു പ്രവർത്തിയാണ് ഓരോദിവസവും അത് കണ്ടുവരുന്നത് അതുകൊണ്ടുതന്നെ അങ്ങനെ ചെയ്യുന്നത് കുറയ്ക്കണമെന്നുതന്നെയാണ് ഞാൻ ഓരോ ദിവസവും വിശ്വസിക്കുന്നത് ലോകത്തിൽ തിന്മ ഒരോ ദിവസം കൂടിവരാൻ ഉള്ള സാഹചര്യങ്ങളും കാര്യങ്ങൾ ഓരോ ദിവസം കൂടുതലാണ് സോ നമ്മൾ ആഗ്രഹിച്ച് അതിനായിട്ട് നിന്നാലേ ഇതിനായിട്ടുള്ള നന്മയ്ക്കായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളു അതിനായിട്ടുള്ള ശ്രമങ്ങൾ എടുത്താൽ പരിശ്രമിച്ചാലേ നന്മയ്ക്കായി നിൽക്കാൻ പറ്റത്തുള്ളു അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിനിൽക്കണമെന്നാണ് എന്റെയഭിപ്രായം